എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായി തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വരയ്ക്കുക എന്ന് അല്ലെങ്കിൽ ഡ്രോയിങ്ങ് എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് ഒരു ഒരു വര പോലും കറക്റ്റ് വളയാതെ വരയ്ക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അത്രയും വരയ് ക്ക് കൈ വഴങ്ങാത്ത ഒരാളായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുണ്ട് അത് പരിശീലനം എടുക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പഠിച്ചിട്ട് അത് എനിക്ക് കഴിയാത്ത ഒരു എനിക്ക് പറ്റാത്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിന് പോവുന്നത് എൻ്റെ സമയം കളയുന്നത് വളരെ പ്രശ്ന മാണല്ലോ അപ്പോൾ അതു കൊണ്ട് സ്വയം അതിനെ എന്താണ് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സ്വയം വരക്കാനുള്ള കഴിവ് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഒന്ന് അറിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ യുട്യൂബിൽ നോക്കി ചിത്രം വരയ്ക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളുടെ ബുക്കിലൊക്കെ ചിത്രം വരയ്ക്കുവാനുമൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഡ്രോയിങ്ങ് എന്നുള്ള ആ ഒരു ഒരു ഫീൽഡ് എനിക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് പല പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബുക്കുകൾ ബുക്കുകൾ ഓരോന്ന് വരയ്ക്കാൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നത്തെ നേരിട്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ അത് അത് നേരിടുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കാം എങ്കിലും ശ്രമിച്ചിട്ടും അതിലേക്ക് വിജയം കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് പിന്നെ പക്ഷേ എങ്കിലും പഴയതിനെ വച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റ് ലെവല് കൂടിയിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് വരയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി എനിക്ക് ഉണ്ടായിരിക്കാം എന്നുള്ള ആ ഒരു ഒരു ധൈര്യമായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഡ്രോയിങ്ങ് എന്നുള്ളത് പഠിക്കാൻ പറ്റാത്തതിൽ വിഷമം വരാതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും ഇനിയും ഞാൻ ശ്രമിക്കും പക്ഷേ എന്നെങ്കിലും അതിനൊരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ശ്രമം എനിക്ക് വിജയകരമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ്സുകളും അതിലേക്ക് കൂടുതൽ ഡ്രോയിങ്ങ് പഠിക്കുവാനും വരയ്ക്കുവാനുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ